ഹലോ അതെ അതെ അതെന്താണ് മിസ്സെ പഠിക്കാൻ ആ ഇരിക്കുന്നുണ്ട് എന്നാലും ഈയിടെയായിട്ടൊക്കെ വയ്യായികയൊക്കെയായിരുന്നു അതുകൊണ്ട് ഒരു വ വല്ല നല്ലരീതി പഠിക്കാനായിട്ടിരിക്കാൻ പറ്റുന്നില്ലായിരുന്നു അതാണ് ഉഴപ്പായിട്ട് ആണോ വീട്ടിൽ പ്രശ്നങ്ങൾ വീട്ടിൽ പ്രശ്നം അങ്ങനൊന്നുവില്ല പിന്നെ കഴിഞ്ഞേണ്ടതൊക്കെ വ അസ്വസ്ഥതേം ഇത് കാരണം ഭയങ്കര ദേഷ്യോം അങ്ങനെ കാര്യങ്ങളക്കെ ആയിരുന്നു പിന്നെ പഠിക്കാനായിട്ടാണേലും ഇരിക്കുന്നൊന്നുവില്ലാരുന്നു അതിന്റെതായ ഒരിതി ഞാൻ നമ്മൾ വഴക്കു പറയൊക്കെ ചെയ്യാരുന്നു ഒന്നും പഠിക്കുന്നില്ല എന്നുമ്പറഞ്ഞ് അപ്പം ഇരിക്കാനുമ്പറ്റ്ന്നില്ല സ്വസ്ഥതേടെതുങ്കൊണ്ട് അങ്ങനെ ഇങ്ങനക്കെയാണ് ആ അ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുവില്ല മിസ്സെ വീട്ടിൽ പ്രശ്നങ്ങളൊന്നുവില്ല ഇതാണെങ്കിൽ ഇനി ഒന്നുടെ ശ്രദ്ധിച്ചോളാം നേഴ്സ്സ് ആ വന്നോളാം വന്നോളാം ആ വന്നോളാം വന്നന്നേഷിച്ചോളാവെ ആ പറഞ്ഞത് കേട്ടല്ലോ കേട്ട് വന്നോളാം അവർ കുഴപ്പമില്ല ആ ആ അവരും വലിയ കുഴപ്പമില്ല അങ്ങനൊക്കെ പൊന്നു ഇല്ല അങ്ങനെയുള്ള പ്രെശ്നങ്ങളൊന്നുവില്ല അതാപ്രശ്നങ്ങളായിട്ട് നമ്മൾ ഇപ്പംവരെ കുഴപ്പമായിട്ടൊന്നും തോന്നിക്കുന്നില്ല ശെരിയെന്നാൽ അ ഞാൻ വന്നോളാം വന്നോളാം വന്നോളാം ശെരിയെന്നാൽ ആ